ഞങ്ങളുടെ പ്രദേശത്തെ വിനോദപരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടൊരു കുളം ഉണ്ട് അവിടെ കുളിക്കാൻ പോകും പിന്നെ ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും ഇതാണ് ഇവിടുത്തെ മെയിൻ വിനോദപരിപാടികള് പിന്നെ കൂട്ടുകാരുമായിട്ട് ട്രിപ്പ് പോകും കൂട്ടുകാരുമായിട്ട് എന്ത് ചെയ്താലും അതൊരു വിനോദപരിപാടിയായി മാറും എന്ത് വേണമെങ്കിലും ചെയ്തോ അത് ഒരു വിനോദമാവും കാരണം വിനോദം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷം സന്തോഷം തരുന്ന എന്തും വിനോദമാണ് അപ്പോൾ എന്ത് ചെയ്താലും അതൊരു പരിപാടി അത് അടിപൊളി ആവും കൂട്ടുകാര് ആയിട്ട് എന്ത് ചെയ്യുന്നോ അതും അടിപൊളി ആവും പിന്നെ യാത്രകൾ പോവും ഇവിടെ ഞങ്ങൾ ഗ്രാമം ഗ്രാമത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുളിക്കാൻ പോവും ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിനോദപരിപാടികൾ